നമ്മുടെ സ്വാതന്ത്ര്യസമരസേനാനികളുടെ ഒരുപാട് പരിശ്രമത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഏറ്റവും കൂടുതൽ പോരാടിയ മഹാൻ നമ്മുടെ നമ്മൾ ബാപ്പുജി സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാ ഗാന്ധിയും അതുപോലെ ഇപ്പോൾ ഒരുപാട് സ്വാതന്ത്ര്യസമര സമര സേനാനികളും ചേർന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് അതുപോലെന്നെ ഗാന്ധിജി ഒരുപാട് സത്യാഗ്രഹങ്ങൾ നടത്തിയത് ചൗരി ചൗരി ചൗരാ സംഭവം ക്വിറ്റ് ഇന്ത്യ വർണ്ണ വിവേചനം മലബാർ ലഹള ഉപ്പ് സത്യാഗ്രഹം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യാഗ്രഹം എന്ന് പറയു സമരമുറ എന്ന് പറയുന്നത് സത്യാഗ്രഹം എന്ന് പറഞ്ഞത് ഉപ്പുസത്യാഗ്രഹം തന്നെയാണ് നമ്മുടെ ഗാന്ധിജിയുടെ സാ സമര മുറ എന്ന് പറയുന്നത് അഹിംസയും സത്യാഗ്രഹവുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി എട്ട് ജനുവരി മുപ്പതിന് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഒരു മത ഭ്രാന്തന്റെ വെടിയേറ്റ് വീരമൃത്യു വരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി എട്ട് ജനുവരി മുപ്പത് എന്ന് പറയുന്ന ഈ ദിവസം നമ്മൾ രക്തസാക്ഷി ദിനമായും ആചരിക്കുകയും ചെയ്യുന്നു